എൻ്റെ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എന്നുപറഞ്ഞാൽ മലയാളം തന്നെയാണ് ഈ മലയാളത്തിൽ കോട്ടയംകാരുടെ പ്രത്യേകത മലയാളം സംസാരിക്കുമ്പോഴത്തേക്കും അവർ സ്പീഡിൽ സംസാരിക്കുന്നു ചില ചില വാക്കുകൾ ചിലവർക്കു മനസ്സിലാകത്തില്ല ഇപ്പം തിരുവനന്തപുരം പോലെയുള്ള പ്രദേശങ്ങൾ അവിടെ സംസാരിക്കുന്ന മലയാളത്തിനു ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ സ്ലാങിന് വ്യത്യാസമുണ്ടാകുന്നുണ്ട്

അപ്പം തീർച്ചയായിട്ടും പ്രാദേശിക ഭാഷകൾക്കും സംസ്ഥാനത്തെ ഗ്രാമീണഭാഷകൾക്കും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് അവരുടെ സ്ലാങ് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം നാം പല പല രീതികളിലാണ് സംസാരിക്കുന്നതു അതായതു എന്തുട്ട് എന്തുണ്ട് എന്നൊക്കെയുള്ള ഭാഷകളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തിരുവനന്തപുരംകാർ എന്തേ